അത് ഇന്നത്തെ കാലത്താണെങ്കില് ഇപ്പോൾ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ അങ്ങനെയുള്ള ഒരുപാട് ഇൻ്റർനെറ്റ് അങ്ങനെ ഒരുപാടുള്ള വഴികളുണ്ട് എന്നാൽ ആദ്യകാലങ്ങളിലെന്ന് പറഞ്ഞാൽ റേഡിയോയെ ആശ്രയിച്ചാണ് എഴുനെ ഉണ്ടായിരുന്നത് ആളുകൾ കഴിഞ്ഞിരുന്നത് പിന്നേന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിവരങ്ങളോ അടുത്ത ബന്ധുക്കളെ കാണണങ്കിലോ എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നെങ്കില് അവര് നേരിട്ട് പോയി സംസാരിക്കുകയൊക്കെയാണ് വേണ്ടിയിരുന്നത് എന്നാൽ ഈ ഈ കാലഘട്ടം ഒരുപാട് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് കംപ്യൂട്ടറിലൂടെയും ഫോണിലൂടെയും നമ്മള് ദൂര സ്ഥലത്ത് ഉള്ളവരെയും അടുത്തുള്ള വരെയും നമുക്ക് ഫോണിലൂടെ തന്നെ വീഡിയോ കോളിലൂടെ ചെയ്താൽ തന്നെ നമുക്കവരെ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് വഴികളുണ്ട് ഈ കാലഘട്ടത്തില് എന്നാൽ ആദ്യ കാലങ്ങളില് അതൊന്നും ഇല്ലായിരുന്നു ശരിക്കുള്ള വഴികള് പോലും ഇല്ലാതെ ഓരോ കാട്ടിലൂടെയും കൊടും വനത്തിലൂടേയും ഒക്കെയാണ് ആളുകള് അവരെ സഞ്ചരിച്ചിരുന്നത് എന്നാൽ ഇപ്പം അതൊക്കെ മാറി ഒരുപാട് വ്യത്യാസങ്ങളാണുള്ളത് ഇപ്പോൾ കൂടുതലാളുകളും എല്ലാ ആളുകളെന്ന് തന്നെ പറയാം എല്ലാരും ഇപ്പം അഡിക്റ്റ് ആയിരിക്കുന്നത് മൊബൈൽ ഫോണിലൂടെയും കമ്പ്യൂട്ടറില് വേ നല്ലോണം അഡിക്റ്റ് ആയിട്ടാണുള്ളത്